ഇന്ത്യയിലെ ആരോഗ്യസംരക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ മറ്റു രാജ്യങ്ങളെക്കാളും സംബന്ധിച്ച് നമുക്കിവിടെ നല്ല ആരോഗ്യസംരക്ഷണങ്ങൾ കിട്ടാറുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലുകളൊക്കെ നോക്കുകയാണെങ്കിൽ സൂചിത്താണെങ്കിലും ശുചിത്വമാണെങ്കിലും എന്താ അതുപോലെ തന്നെ നമ്മൾ ചിലവ് കാര്യങ്ങളൊക്കെ ആകുന്നില്ലേ അത്യാവശ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും പിന്നെ ഞാൻ അനുഭവിച്ച വെല്ലുവിളി എന്ന് പറയുമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലയെന്നല്ല ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നല്ല കംഫോർട്ട് ആകുന്ന രീതിയിലല്ല ശരിക്കും അവരുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക പിന്നെന്താച്ചാൽ വാർഡിലൊക്കെ ആകുമ്പോൾ കുറേ രീതി അതുപോലെ തന്നെ പേഷ്യൻസിൻ്റെ കൂടെ വരുന്നവർക്ക് കിടക്കാനുള്ള സ്പേയ്സ് ഉണ്ടാകില്ല എന്നുള്ളത് ഒന്നാമത്തെ വെല്ലുവിളി നമ്മൾ നേരിട്ടിട്ടുള്ളത് പിന്നെ ക്ലീനിങ്ങും ഗവൺമെൻറ് ഹോസ്പിറ്റലാകുമ്പോൾ കുറേ നീണ്ട ക്യുകളൊക്കെ ഉണ്ടാകും അത് നമുക്ക് അത് വേറൊരു വെല്ലുവിളി ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അർജന്റായിട്ട് പോകുമ്പോൾ തന്നെ കുറേ ക്യു കുറേ എന്താ ടിക്കറ്റ് എടുക്കാൻ മറ്റേ ഒ പി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ക്യു ഉണ്ടാകും അത് ഒരു വെല്ലുവിളി ആയിട്ട് തന്നെ കൂട്ടും ബാക്കിയെല്ലാം കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് പോകുന്നത്